പ്രശാന്ത ചേച്ചീ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ കുഞ്ചുവിൻ്റെ പിറന്നാളിന് ഒരു ഫോൺ ഫോൺ ഫ്ലിപ്പാട്സ്സിലില്ലേ ആ ഫോൺ ഓൺലൈനിലായിട്ട് ഓർഡർ ആക്കി ഓൺലൈൻ ആയിട്ട് ഓർഡർ ആക്കിയിട്ട് ആ ഫോൺ വന്നു ഫോൺ വന്നിട്ട് നല്ല കാണാൻ നല്ല ഫോൺ തന്നെയാന്ന് ഒന്നും ഇതൊന്നുമില്ല പക്ഷേ ആ ഫോണിൽ പറഞ്ഞാൽ ചാർജ് നിൽക്കുന്നില്ല ഒരൂ ചാർജ് നിൽക്കുന്നില്ല ചാർജ് ചെയ്തിട്ട് പിന്നെ കുറേ കഴിയുമ്പം നമ്മൾ ഇയർഫോൺ എല്ലാം വെച്ചിട്ട് ചെവിയിൽ കുത്തിയിട്ട് കോൾ ആക്കുമ്പോൾ ഇയർഫോൺ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്ന് ആ ഫോണിൽ ഇപ്പം എന്നുപറഞ്ഞാൽ നമ്മൾ ഇപ്പം കുറേ ഗ്രൂപ്പ് എല്ലാം ഇല്ലേ ആ ഗ്രൂപ്പ് എല്ലാം ഇപ്പം ആ ഫോണിൽ നമ്മൾ എന്നെ എല്ലാം ആഡ് ആവുന്നു എന്ന് എല്ലാം ഇപ്പം സ്കൂളിൽ തന്നെ എത്രയാണ് ഗ്രൂപ്പ് പിന്നെ സ്വിമ്മിങ്ങിന് ഒരു ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പ് സ്റ്റഡി സ്റ്റഡി മെറ്റീരിയലിൻ്റെ വേറൊരു ഗ്രൂപ്പ് അങ്ങനെ കുറേ ഗ്രൂപ്പ് എല്ലാം ആവുമ്പം അപ്പാടെ ഹാങ്ങ് ആവുന്നു ഹാങ്ങ് അവുന്നതറിയില്ല ഒരേ സൈഡിൽ ഞങ്ങൾ ഞെക്കിയിട്ട് ഞെക്കിയിട്ട് അതാക്കുന്നു എന്താണ് ഇത്ര നല്ലൊരു ഫോൺ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ആ ഫോൺ ഫോണിൽ എപ്പോളും ഇങ്ങനത്തെ എല്ലാം ഓരോരോ മാറ്റങ്ങൾ വരുന്നു എന്ന് എന്തെന്ന് പ്രശാന്ത ചേച്ചി ഇങ്ങനെ ആയാൽ നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ബുക്ക് ഒരു ബുക്ക് എന്ന് സോ അല്ല മാറിപ്പോയതാണ് ശാന്ത ചേച്ചി ഓൺലൈനിൽ ഇപ്പം ഫോൺ ഓൺ അക്കി ഓ ഓർഡർ ആക്കിയിട്ടത് വന്നു ഇത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ ഓർഡർ ആക്കി ആ ഫോണിൽ ഇങ്ങനത്തെ എല്ലാം തകരാറ് ഫോട്ടോ എടുക്കുമ്പം ക്ലിയർ ഇല്ല ഫോട്ടോ ക്യാമറ ഇത്ര ക്യാമറ അങ്ങനെ എല്ലാം പറഞ്ഞിട്ടല്ലേ നമ്മൾ വാങ്ങുന്നത് വാങ്ങിയിട്ടാവുമ്പം ആ ക്യാമറ ഒന്നുമില്ല ഒന്ന് ക്ലിയർ ഇല്ല എന്നെല്ലാം പറഞ്ഞാൽ ഒരു ക്ലിയറുമില്ല ഇപ്പം നമുക്കൊന്ന് അതിനെക്കൊണ്ടൊരു ഉപയോഗമില്ല ഒരു ഫോണിനെക്കൊണ്ട് എന്തെന്ന് ഇപ്പം കോൾ ആക്കിയെങ്കിൽ ആ കോൾ എല്ലാം ഇങ്ങനെ തന്നെ ഹാങ്ങ് ഇങ്ങനെ ഒരു ലൗഡ്സ്പീക്കറ് മറ്റുള്ള ആൾ ഇങ്ങനെ പറയുമ്പം എക്കോ ആവുന്നത് മാതിരി എക്കോ ആയിട്ട് ഹലോ ആ ആ അങ്ങനെ ഫോൺ വിളിക്കുമ്പം എല്ലാം എക്കോ ആയി വരുന്നു ഇല്ല ആ ആ പറയുമ്പം അത് എവിടുന്നോ പറയുന്നത് മാതിരി ഒരു കുന്നിൻ്റെ മുകളിലെല്ലാം കയറിയിട്ട് നമ്മൾ പറയലില്ലേ നമ്മൾ പറയുന്ന കണക്ക് ഇങ്ങനെ എക്കോ ആവുന്നു എന്ന് ഫോൺ വിളിക്കുമ്പോൾ എല്ലാം ലൗഡ് സ്പീക്കറിൻ്റെ തകരാറായിരിക്കില്ലേ ഒരു ഫോണിന് എന്തെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ഒരു ഫോണിന് ഒരു ഭയങ്കര ഒരു ഫോൺ നമ്മൾ വാങ്ങിയിട്ട് അത് നമുക്ക് ഒരു ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഒന്നും ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ നല്ല ഫോട്ടോ നമുക്ക് എങ്ങനെയായാലും ആവ് ആയി വരുന്നില്ല ഫോട്ടോ ആ ക്ലിയർ ഇല്ല ഒന്നുകിൽ ഉണ്ടിങ്ങനെ കറുത്തിട്ട് കറുപ്പ് ഇങ്ങനെ ഒരു നല്ല് അതിൻ്റെ ക്യാമറ എല്ലാം ഇങ്ങനത്തെ ക്യാമറ അങ്ങനത്തെ ക്യാമറ എന്നെല്ലാം പറഞ്ഞിട്ടാണ് വാങ്ങുന്നത് അതോ എത്ര ജി ബി ഉണ്ട് ഇത്ര ജി ബി ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിയിട്ടോ ഒരു ഒരഞ്ച് ഗ്രൂപ്പ് അതിൽ ആകുമ്പോഴേക്ക് ഹാങ്ങ് ആയി പിന്നെ ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അതെല്ലാം കളയണം ഡിലീറ്റ് ആക്കിയിട്ട് കളയണം ഒരു ഉപയോഗം വേണ്ടേ ഒരു ഫോൺ നമ്മൾ വാങ്ങിയാൽ ആ ഫോണിനെക്കൊണ്ട് ഒരു ഉപയോഗം വേണ്ടേ അതൊന്നുമില്ലെന്ന് ഒരു ഒരു കുഞ്ഞിനെ പിറന്നാളിന് നമ്മൾ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു അത് ആ കുഞ്ഞിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അത്ര ഒരു കൊല്ലത്തെ ഗ്യാരൻറി ഗ്യാരൻറി ഉണ്ടായിട്ട് ഒരു കൊല്ലം അതുപയോഗിക്കാൻ പറ്റുന്നില്ല ഓൺലൈനി വാങ്ങിയത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അത് ഒന്നത് തിരിച്ച് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് എന്തുന്ന് ഇങ്ങനെ ആയാൽ ചെയ്യൽ പ്രശാന്ത ചേച്ചി ആ ഓർഡർ ആക്കിയ ഫോൺ ഇനി നമ്മൾ എന്തുന്ന് ആക്കൽ അതിനി ഓ ഫോണിൻ്റെ കമ്പിനിയ് ആട കൊടുത്തേക്കാണോ വേണ്ടത് അത് ആ അവർ ആ കമ്പിനിയിൽ നിന്ന് അവർ എന്തുന്ന് ചെയ്ത് തരൽ നമുക്ക് ആ ഫോൺ അവർക്ക് കൊടുത്തിട്ട് ഇന്ന തകരാർ എല്ലാമാണീ ഫോണിന് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നേരായി തരുമോ തരാക്ക് നേരാക്കി തരുമോ തരുവായിരിക്കും അല്ലേ പിന്നെ എന്നുപറഞ്ഞാൽ ഒരു ഫോൺ അത് നമ്മൾ കുഞ്ഞിക്കിപ്പം ക്ലാസ് എല്ലാമുണ്ട് ക്ലാസ് എല്ലാമെന്ന് പറഞ്ഞാൽ കുറേ നേരം ക്ലാസ് ഉള്ളതാണ് ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് ഇപ്പം നീറ്റ് എക്സാം എല്ലാം ആയതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിക്ക് ഫോൺ വാങ്ങിക്കൊടുത്തത് നീറ്റ് എക്സാമിന് വീട്ടിൽ നിന്ന് പഠിക്കാം ഓൺലൈനിൽ നമ്മൾ പൈസയും കെട്ടി ഓൺലൈൻ ക്ലാസ് കാണേണ്ടേ ആ ക്ലാസ് കാണണമെങ്കിൽ ഈ ഫോണിൽ ആവുന്നില്ല ക്ലാസ് കാണണമെങ്കിൽ ഈ ഫോണിൽ ആവേണ്ടേ ആവുന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പേക്ക് തന്നെ ഫോണിൽ ഫോൺ നിന്നു നിന്നു എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഭയങ്കര ചൂടായിരിക്കും ഫോണിന് ഇങ്ങനെ ഭയങ്കര ചൂടായിട്ടാവുമ്പം നമുക്ക് തന്നെ തോന്നും എന്താപ്പാ ആ ഫോൺ പൊട്ടിത്തെറിക്കാനും ചെയ്യുമോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അത് ഓഫ് ആക്കി വെച്ച് കുറച്ച് ഒരു അര മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ആ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്ക് കുഞ്ഞിയുടെ ക്ലാസ് കഴിഞ്ഞുപോവില്ലേ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ അങ്ങനത്തെ എല്ലാം ഒരിതായി പോയിട്ട് നമ്മൾ ഇപ്പം ഒരു ഫോൺ വാങ്ങിയാൽ ഒരു ഫോൺ വാങ്ങിയതിൽ എല്ലാം തകരാറ് തന്നെ സൗണ്ട് സിസ്റ്റം തകരാറ് ഫോട്ടോ സിസ്റ്റം തകരാറ് ഓൺലൈനിൽ ക്ലാസ് കാണാൻ കഴിഞ്ഞില്ല ജി ബി ഇത്ര ജി ബി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ജി ബിയിലൊന്നും ഒരു കാര്യമില്ല അവർ പറച്ചിൽ വെറുതേ എഴുതിയിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ അത് വായിച്ചിട്ട് നമ്മൾ ആ ഫോൺ ഓർഡർ ആക്കും ഓർഡർ ആക്കിയിട്ട് ആ ഫോൺ വാങ്ങിയിട്ട് എത്ര പൈസയും നഷ്ടം നമുക്ക് എന്താണ് ഇതെന്ന് ഇങ്ങനെ എന്തുന്ന് വേണ്ടത് നിങ്ങൾ ഒരു സൊല്യൂഷൻ പറഞ്ഞുതാ പ്രശാന്ത ചേച്ചി എന്താണ് ആക്കേണ്ടത് ആ ഫോൺ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് കൊടുത്തിട്ട് നേരാക്കിയിട്ട് കിട്ടുമായിരിക്കുവല്ലേ ആ ഫോൺ എന്താണ് ആണ് എന്തുന്ന് നേരാക്കിയിട്ടാണ് അവർ തരൽ ഇനി ഇപ്പം നമ്മൾ അതിന് പൈസ കൊടുക്കേണ്ട അപ്പം അവർ പറയുക ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ പോയിനി അതിനിത്ര പൈസ വേണം എന്ന് പറയും പിന്നെ ക്യാമറയുടെ അത് പോയിനി അതിനിത്ര പൈസ വേണം അങ്ങനെ എല്ലാം ഓരോരോ കാര്യങ്ങൾ പറയും നമുക്ക് പിന്നെ ഒരു പാട്ട് കേൾക്കാമെന്ന് വെച്ചാൽ കഴിയില്ല ഇപ്പം കുഞ്ഞിക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ് കാണണമെങ്കിൽ ക്ലാസ് കാണാൻ നമ്മൾ ആട ഇരിക്കുമല്ലോ ക്ലാസ് കാണാൻ ആട ഇരിക്കും മറ്റുള്ളവരുടെ സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ എന്താണ് ആക്കുക നമുക്ക് ഇയർഫോൺ വെച്ചിട്ട് ക്ലാസ് കാണാം ഇന്നിരിക്കുക ഇയർഫോൺ വർക്ക് ചെയ്യുന്നില്ല ഇയർഫോൺ വർക്ക് ചെയ്യുന്നു എന്നല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ലാതെ ക്ലാസ് കാണാൻ പറ്റില്ലല്ലോ ആ ക്ലിയർ ഇല്ലാതെ ക്ലാസ് കാണാൻ പറ്റില്ലല്ലോ എന്തെന്ന് ചെയ്യൽ എന്ന് ഇങ്ങനെ ആയാൽ ആ മോശമായി പോയിട്ട് ഒരു ഫോൺ വാങ്ങിയിട്ട് അതിൻറെ ഒരു ഇങ്ങനെയൊരാ ഇങ്ങനെ ആയിക്കൂട ഒരു ഫോണിന് ഒരു ഫോൺ നമ്മൾ വാങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു പറ്റ് പറ്റലില്ല